ഇപ്പം ഗ്രാമപ്രദേശത്തിലുള്ളവരൊക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പുറത്തേക്കൊന്നും പോവുകയില്ല അവർ അവരുടേതായ ഒരു ഗ്രാമത്തിലെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരാണ് കൂടുതലായിട്ടും എന്നാലും അവർ മ പുറത്തേക്കൊക്കെ കൂടുതലായിട്ടും ഇറങ്ങുന്നതെന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടികളൊത്തു കളിക്കുന്നതിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കുട്ടികളൊക്കെ കൂടുതലായിട്ടും പുറത്തിറങ്ങുന്നത് അപ്പം ഈ പഴയ എന്താ പറയാ ഇപ്പോഴത്തെ ഈ തലമുറയിലുള്ള കുട്ടികളൊക്കെ കൂടുതലും ഈ കളിച്ച് ഉള്ള ബേ ബെയിസിൽ തന്നെയാണ് കൂടുതൽ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് അപ്പോൾ അവർക്ക് എന്താ പറയാ ഇങ്ങിനെ കളിക്കുന്നതോടു കൂടി എന്താ പറയാ നല്ലൊരു എന്താ പറയാ പുറം ലോകവുമായിട്ടൊരു ബന്ധോക്കെയാകും അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗ്രാമപ്രദേശത്തിലുള്ളവർക്കൊക്കെ കൂടുതലായിട്ടും എന്താ പറയാ ഇപ്പം മുന്നോട്ടു വരാനുള്ള ഒരു നല്ല ചാൻസൊക്കെയാണ് ഈ ഗെയിംസും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഈ ഗെയിംസിലൂടെയാണിപ്പോൾ എന്താ പറയാ കൂടുതലും താഴ്ന്ന ജാതിയിലുള്ളവരൊക്കെ പുറത്തേക്ക് എന്താ പറയാ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പം ഗെയിംസിലൂടെ വന്നവർ നല്ല രീതിയ്ക്ക് മുൻപോട്ട് വരാനൊക്കെ എന്താ പറയാ ഗ്രാമത്തെ പ്രദേശങ്ങളിലൊക്കെയുള്ള കളികൾ നല്ല ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പം ഗ്രാമങ്ങളിൽ കൂടുതലായിട്ട് ഫുട്ബോള് ക്രിക്കറ്റ് പിന്നെ ഗോട്ടികളി അങ്ങനത്തെ കളികളൊക്കെ കൂടുതലായിട്ടും കളിക്കുന്നുണ്ട് അവർക്ക് പുറംലോകം പുറത്തേക്കൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ചെറിയ ബന്ധങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എന്താ പറയാ ഒരു മനുഷ്യനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നൂല്ല്യ അവർക്കും നല്ല രീതിക്ക് തന്നെ ആളുകളായിട്ട് ഇപെടാനൊക്കെ കഴിയുന്നുണ്ട്